ഒന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുവത്തിയൊന്ന് ഒന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് ഒന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന്